ഞാൻ എട്ടാം ക്ലാസ്സില് പഠിക്കുമ്പോ ഒരിക്കൽ സ്കൂളില് ആർട്സ് ഉണ്ടായി അന്ന് ഒരു കലയോടും താല്പര്യമില്ലാത്ത പാട്ട് പാടാനോ നൃത്തം ചെയ്യാനോ ഒന്നിനും താൽപര്യമില്ലാത്ത എന്നെ എൻറ്റെ ക്ലാസ്സ് ടീച്ചർ നിർബന്ധിച്ച് ന്യത്തത്തിലേക്ക് കൊണ്ടു വന്നു അങ്ങനെ അന്ന് ഞാൻ ആദ്യമായി സ്റ്റേജിൽ കയറി നൃത്തം ചെയ്തു എനിക്കറിയുന്നത് പോലെ ഞാൻ അവിടെ ചുവടുകൾ വെച്ചു അന്ന് ആർട്സിൽ ഏറ്റവും ഫസ്റ്റ് മേടിച്ചതും ഞാനായിരുന്നു അതിനുശേഷം സ്കൂളില് ഏതൊരു ആർട്സ് വരും ആർട്സ് ആൻഡ് സ്പോർട്സ് വരുമ്പഴും ഞാൻ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു പ്രത്യേകിച്ചും നൃത്തത്തില് പിന്നീട് ഞാൻ എല്ലാ സ്റ്റേജ് ഷോയിലും ഒക്കെ ഞാൻ നൃത്തം ചെയ്തു അങ്ങനെ ഞാൻ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു നൃത്തകാരിയായി ഈ കേരളത്തിൽ അറിയപ്പെട്ട് തുടങ്ങി അതായിരുന്നു എൻ്റെ നൃത്തത്തിലേക്കുള്ള വഴി